എൻ്റെ പ്രദേശത്ത് സമുദായങ്ങൾ തമ്മിലൊരുമയുണ്ടാക്കാൻ മീഡിയാസ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂ മീഡിയ സഹായിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എൻ്ററിവിൽ അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഇല്ലാന്ന് തന്നെയാണ് പകരം ഫേക്ക് ന്യൂസുക്ലോ ഫേക്ക് ന്യൂസ്കൾ അയച്ച് കൊണ്ട് ഇവരോക്കെ വീണ്ടും തെറ്റായ രീതിയിലേക്ക് പോവാൻ വേണ്ടീട്ട് സോഷ്യൽ മീഡിയ സഹായിച്ചതായിട്ട് എനിക്ക് തോന്നണുണ്ട് അത് പലപ്പോഴും കാണാറുണ്ട് അല്ലാതെ ഈ പറയുന്ന രീതിയിലുള്ളൊരു സമീപനം സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നതായിട്ടെനിക്ക് പേഴ്സൺലി ഒരു ഇതില്ല ഒരു എന്താ പറയാ ഒരനുഭവമില്ല എൻ്റെ നാട് പറയുന്നത് ചെറിയൊരു ഗ്രാമമാണ് അവിടുന്ന് ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ ഒരു വർഗ്ഗീയ കലാപം ഉണ്ടായിരുന്നു അതിന് കാരണംന്ന് പറയുന്നത് ഒരു തരത്തിൽ സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിലൂടെ പകർ പടർന്ന് ഒരു എന്താ പറയാ ഫേക്ക് ന്യൂസായിരുന്നു അതിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു ഇത് ഇല്ല ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു അറിവിലില്ല